ഈ പ്രദേശത്തെ ആശുപത്രിയെ പറ്റി പറയുവാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് പൈക കാഞ്ഞിരപള്ളി ഇവിടെ രണ്ടുമാണ് ഗവർമെന്റ്റിൻ്റെ കീഴിൽ വരുന്ന ആശുപത്രികൾ ഈ പരിസരത്ത് ഉള്ളത് ഈ പ്രദേശത്ത് ഉള്ളത് അപ്പോൾ ഇവിടെയൊക്കെ തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആശുപത്രികളാണ് ഇവിടെ ഇവിടുത്തെ ഡോക്ടർമാരെ ചിൽകിത്സയും അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ളതാണ് പിന്നീട് പറയുവാണെങ്കിൽ അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പോലെത്തന്നെ ഗർഭിണികളായുള്ള സ്ത്രീകൾക്കും ഏറ്റവും കൂടുതൽ അവർക്ക് പരിച വേണ്ട പരിചരണവും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ശുശ്രൂഷ കാര്യങ്ങളെല്ലാം ചെയ്തുകൊടുക്കുന്നത് വളരെ മെച്ചപ്പെട്ട രീതിയിലും മികച്ച രീതിയിലുമാണ് പുതിയ ടെക്നോളജി പരമായിട്ടുള്ളതും അതുപോലെ തന്നെ ഫുഡും എല്ലാം അവർക്ക് വളരെ ആധുനികപരമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അവർക്ക് ആശുപത്രിയിൽ നിന്നും ഇവിടെ പ്രദേശങ്ങളിലെ ആശുപത്രിയിൽ നിന്നും കിട്ടുന്നത് അതുപോലെ തന്നെ ഗർഭിണികൾക്ക് മാത്രമല്ല ഗർഭ ശേഷവും അവർ അവിടെ അതിന് വേണ്ടിയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗവർമെൻറ്റ് ആശുപത്രികളിൽ ഇപ്പോൾ ഒരുപാട് ഒരുപാട് ഒരുപാട് ടെക്നോളോജികൾ വന്നത് കൊണ്ട് തന്നെ അവർക്ക് അത് ആ അവർക്ക് കൂടുതൽ കൂടുതൽ അതിനൊരു ആശ്വാസം അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ചിലവുകൾ കുറക്ക കുറച്ച് നമുക്ക് ചെയ്ത് തരാനും നമുക്ക് അതിൽനിന്ന് സാധിക്കുന്നുണ്ട് പ്രതേകിച്ച് ഈ ഗർഭകാലത്ത് നമുക്ക് ഒരുപാട് ഒരുപാട് പൈസക്ക് ആവശ്യമുള്ള സമയത്ത് തന്നെ അവര് അതൊക്കെ കണ്ടറിഞ്ഞ് വളരെ നമുക്ക് നമ്മുടെ കൈയിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് ആവുന്ന പോലെ രീതിയിൽ അവർ നമുക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്ത് തരാനും അവർ അവരുടെ ഭാഗത്ത് നിന്നും ശ്രമിക്കുന്നുണ്ട്